നമ്മുടെ പ്രദേശത്ത് വിദ്യാഭ്യാസത്തെ നല്ല രീതിയിൽ സ്വാധീനിച്ച പദ്ധതി സർക്കാർ പദ്ധതി എന്നുവച്ചാൽ സർക്കാർ സ്കൂളുകള് തന്നെയല്ലേ കാര്യമായിട്ടും സർക്കാരിന്റെ കമ്പൽസറി വിദ്യാഭ്യാസം അതായത് എട്ടാം ക്ലാസ് വരെ നിർബന്ധ പാഠ്യപദ്ധതിയുണ്ടല്ലോ സ്കൂളില് ആ സ്കൂളുകളിലതുകൊണ്ട് എല്ലാ കുട്ടികൾക്കും വിദ്യാഭ്യാസമാണ് കാരണം നമ്മുടെ ഭാഗത്ത് കോളനി പ്രദേശങ്ങളൊക്കെ ഒരുപാടുള്ളതാണ് അവിടെയുള്ള കുട്ടികളൊക്കെ സ്കൂളധികൃതർ പോയി തേടിപ്പിടിച്ച് സ്കൂളിലേക്കു കൊണ്ടുവന്ന് അവർക്കു വിദ്യാഭ്യാസം കൊടുക്കുന്നു അപ്പോള് നമ്മള് കുറച്ചു പുരോഗമനമുള്ള ആൾക്കാര് കുട്ടികളെ നിർബന്ധ ബുദ്ധിയോടെ സ്കൂളിൽ പറഞ്ഞയയ്ക്കും പക്ഷേ ഇങ്ങനെ ഈ കോളനി പ്രദേശം അങ്ങനെയൊക്കെയുള്ള സ്ഥലത്ത് അവരെ നമ്മള് സ്കൂളിലേക്കു കൊണ്ടുവരണം ടീച്ചേഴ്സ് അല്ലെങ്കിൽ പഞ്ചായത്ത് മെമ്പർമാരൊക്കെ പോയിട്ട് സ്കൂളിലേക്കു കൂട്ടിക്കൊണ്ടുവരലാണ് അവർക്കുള്ള ഉച്ചഭക്ഷണം അതുപോലെ രാത്രിയത്തെ ഭക്ഷണമൊക്കെ കൊടുത്തയച്ച് ആ രീതിയിലാണ് പ്രദേശത്തുള്ള കുട്ടികളെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് സർക്കാരിന്റെ നിർബന്ധിത വിദ്യാഭ്യാസപദ്ധതി വളരെ ഉപകാരം തന്നെയാണ് കാരണം അവർക്കും അല്ലെങ്കിൽ അവര് സാക്ഷരത ഇല്ലാതെ ഒരു വികസനവും ഇല്ലാതെ തകരുന്നത് അതുകൊണ്ട് ആ കോളനി പ്രദേശത്തുള്ള ആൾക്കാർക്കും എല്ലാ എല്ലാ തരത്തിലുള്ള വിദ്യാഭ്യാസവും ലഭ്യമാക്കാൻ സാധിക്കുന്നുണ്ട് പത്താം ക്ലാസ് വരെ സ്കൂൾ ഓരോ ഗ്രാമപ്രദേശങ്ങളിലും നിർബന്ധമായി സർക്കാർ തുടങ്ങിയതുകൊണ്ട് ആ ഒരു പ്രദേശത്തുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും നല്ല വിദ്യാഭ്യാസം കിട്ടുന്നുണ്ട് ആദ്യമൊക്കെ എല്ലാ വിഷയങ്ങൾക്കും പസായാലും ഇല്ലെങ്കിലും ജയിപ്പിച്ചുവിടുന്നൊരവസ്ഥയായിരുന്നു ഇപ്പോഴതു മാറ്റി നല്ല മാർക്കുണ്ടെങ്കില് മാത്രം ജയിപ്പിച്ചു വിടുന്ന ഒര അവസ്ഥ കൊണ്ടുവന്നതുകൊണ്ട് വിദ്യാഭ്യാസ പദ്ധതി ഒന്നു കൂടെ മെച്ചപ്പെട്ടു അതിന്റെ കൂടെ ഉച്ചഭക്ഷണം കൊടുക്കുന്നതുകൊണ്ട് അതും ഗുണകരമാണ് പിന്ന കുടുംബശ്രീ വഴി അതുപോലെ പഞ്ചായത്ത് പഞ്ചായത്തിൻ്റെ രീതിയിലൊക്കെ വിദ്യാഭ്യാസമുള്ളവരെ പ്രോത്സാഹിപ്പിക്കുന്ന പ്രശംസനീയമായ ചില കാര്യങ്ങളൊക്കെ ഉള്ളതായിട്ട് അവാർഡുകളൊക്കെ കൊടുക്കുക നല്ല വർക്കുള്ള കുട്ടിക്ക് അവാർഡുകള് നല്ല ജോലി പഠിച്ചു നല്ല ഉന്നതിയിലെത്തിയാല് അവർക്കുള്ള പ്രോത്സാഹന സമ്മാനങ്ങള് കൊടുക്കുക അതൊക്കെ നല്ല കാര്യങ്ങളാണ്